ഇന്ത്യയിലെ കേരളത്തിലും ലക്ഷദീപിലും പുതുച്ചേരിയിലും മാഹിയിലുമൊക്കെയാണ് മലയാളം സംസാരിക്കുന്നത് ഓണം ഒക്കെ പറഞ്ഞാല് മലയാളികളുടെ ഒരു ആഘോഷമാണ് പിന്നെ ഓണമെന്നൊക്കെ പറയുമ്പോള് പുലിക്കളി പൂക്കളം വടംവലി ഓണസദ്യ ഒക്കെ ഓർമ്മ വര്ന്നെ സദ്യാന്നൊക്കെ പറയുമ്പോള് ഒരു പ്രത്യേക രസമാണ് പത്ത് പതിനാല് കൂട്ടാന് കൂട്ടാനുണ്ടാകും അവസാനം ഈ പായസം അതുങ്കൂടി ആയാല് സദ്യ ഉഷാറായി ഓണന്ന് ഓണം അതുപോലെ തന്നെ വിഷു മലയാളികളുടെ സംസ്കാരത്തെ നിലനിർത്തുന്ന ഒന്നാണ് വിഷു എന്നൊക്കെ പറഞ്ഞാല്പ്പിന്നെ കണി കാണല് കൈനീട്ടങ്കിട്ടും കണി ഉരുളിയില് അരി വെച്ചിട്ട് ചക്ക വാൽക്കണ്ണാടി വെള്ളരി ചില്ലറപ്പൈസ കൃഷ്ണന് വെള്ളമുണ്ട് ഇതൊക്കെ വെച്ച്കാണ്ട് കണ്ണ് പൊത്തിക്കൊണ്ടുവന്ന് കണി കാണും എന്നിട്ട് കണി കാണും ഇതൊക്കെ മലയാള സംസ്കാരത്തെ അതിൻ്റെ പ്രധാനമായ നിലനിർത്തുന്നൊരു ആഘോഷമാണ് പിന്നെ തൃശ്ശൂരിലൊരു വടക്കുന്നാഥ ക്ഷേത്രം മലയാളികളുടെ ഒരു പ്രാർത്ഥന ആരാധനാലയമാണ് അവിടുത്തെ തൃശ്ശൂര് പൂരമൊക്കെ പറഞ്ഞാല് ലോകമെമ്പാടും ആയിരക്കണക്കിനാളുകള് പൂരം കാണാൻ വരും കുറേ ആനകള് നെറ്റിപ്പട്ടം കെട്ടി നിൽക്കും കുടമാറ്റം വെടിക്കെട്ടുണ്ടാവും അങ്ങനെ രണ്ടു ദിവസത്തെ രണ്ടു ദിവസം മുമ്പ് തുടങ്ങും വെടിക്കെട്ടൊക്കെ ഇതൊക്കെ മലയാളി ഭാഷയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണ്ന്നെ ഇത്ര